വരും വർഷങ്ങളില് കാർഷികമേഖല വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് ആയിരിക്കും മാറാൻ പോകുക പണ്ടത്തെക്കാലത്തെ പോലെ അല്ല ഇനി ഇന്ന് ഇനി വരുന്ന തലമുറകളില് പണ്ടത്തെ ഉപകരണങ്ങൾ അല്ല ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കണത് പ ടെക്നോളജീസ് വളർന്നകൊണ്ട് ഇനി ക ക കളപറിക്കാനും ഞാറുനടാനെല്ലാ ഇനി റോബോർട്ടിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമായിരിക്കും പുതിയ പുതിയ വിപണനക്കാര് പണ്ടത്തെപ്പോലെ നമ്മള് സൊ സൊസൈറ്റീയിലേക്കായിരിക്കില്ല നെല്ല് കൊടുക്കുക വിപണനക്കാരൊക്കെ മാറും ഒരുപാട് മൾട്ടിവേഷൻ കമ്പനീസുകള് അതിൻ്റെ ഇൻവോൾവ് ചെയ്യാറുണ്ട് ഒരുപാട് ഉപകരണങ്ങളൊക്കെ മാറ്റുവാണ് ടെക്നോളജീസ് വന്നതുകൊണ്ട് ഉപകരണങ്ങളുടെ ഇൻഡ്യഡ്യൂഷ് ഇന്ഡൊഡക്ഷൻ എന്ന് പറയുന്ന കൂടുതലായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പല പല ഉപകരണങ്ങള് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതായിരിക്കും പല റോബോട്ടിക് സംവിധാങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി രീതി ആകെ മാറ്റാനാണ് ഇന്ന് കാണുന്ന സാധ്യത എന്ന് പറയുന്നത്